ആ ഹലോ ആ ആ ആ അതെ അതെ ആരാണ് പറയൂ ഓ ഓ ഓ ഓ ആ എന്താണ് വിളിച്ചത് ആ ഹാ ഓക്കെ ഓക്കെ ആ ആൾ കുഴപ്പമൊന്നും ഇല്ല രണ്ട് ദിവസം അല്ലേ ആയിട്ടുള്ളൂ വന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് എഴുതിച്ച് നോക്കിയിരുന്നു അപ്പോൾ എഴുതാനൊക്കെ ഇത്തിരി പുറകോട്ടാണ് ബേസിക്കലി നമ്മുടെ പിള്ളേർക്ക് ഉള്ളൊരു പ്രശ്നം ഉണ്ടല്ലോ മലയാളവും ഇംഗ്ലീഷും ആ ആ

ഓക്കെ ഓക്കെ കുഴപ്പമില്ല ഞാൻ ആ ആ ശരൺ ആയിട്ട് വരാൻ കുറച്ച് ദിവസം എടുക്കും നമ്മൾ ധൃതി പിടിച്ചിട്ട് കാര്യമില്ല കാരണം അവർ മൊത്തം ഇംഗ്ലീഷിലാണല്ലോ ബാക്കി എല്ലാം അപ്പോൾ പിള്ളേരെ ഇപ്പോൾ ഒരു ബേസിക് പ്രശ്നമാണ് മലയാളം അറിയാത്തത് നമുക്ക് നേരെയാക്കി എടുക്കാം കുഴപ്പമില്ല ആ പേരൻറ്സ് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നേ ഉള്ളൂ

ആ ആ ഞാൻ കൊടുത്തിരുന്നു ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നു എഴുതിയിട്ട് വരണമെന്ന് പറഞ്ഞു ഫസ്റ്റ് ഡേ കുഴപ്പം ഉണ്ടായിരുന്നില്ല ആൾ എഴുതിയിട്ടുണ്ട് ആൾക്ക് അങ്ങനെയുള്ള പ്രശ്നം ഒന്നും ഞാൻ കണ്ടിട്ടില്ല ആ അത് കുഴപ്പമില്ല ഞാൻ ആ ഞാൻ നോക്കിക്കോളാം കാരണം കുറച്ച് പിള്ളേർ അല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല ആളുടെ ക്ലാസിലുള്ള രണ്ട് പേർ ഉണ്ട് ആ ആ അപ്പോൾ നമുക്ക് ഫോളോ അപ്പ് ചെയ്ത് പോവാം കുഴപ്പമില്ല ഒന്ന് ഒന്ന് പിടിച്ച് കുറച്ച് ദിവസം ഒന്ന് ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ ഇമ്പ്രൂവ് ചെയ്യാം ഒരു ഒരു മാസം കൊണ്ടൊക്കെ അത് പഠിച്ചോളും ആയി വന്നോളും

ആ അത് നമ്മൾ ഇവിടെ എല്ലാവർക്കും ഒരു അവർക്ക് തറോ ആകുന്നത് വരെ എല്ലാ ദിവസവും പറയിപ്പിക്കുന്നുണ്ട് മാറി മാറി പറയിപ്പിക്കുന്നുണ്ട് എല്ലാ ദിവസവും പറയിപ്പിക്കുന്നുണ്ട് അപ്പം അതും കുഴപ്പമില്ല നമ്മൾ ആ ഇവിടെ ഫസ്റ്റ് ബേസിക്സ് ആണ് കൊടുക്കുന്നത് അപ്പം ഇംഗ്ലീഷും മലയാളവും എഴുതാനും വായിക്കാനും പിന്നെ മാത്സിൻ്റെ ബേസിക്സും ഹിന്ദിയും നോക്കുന്നുണ്ട് അപ്പോൾ അപ്പം ശരിയാവും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവരുടെ ടോപിക്സിലേക്ക് കയറുക കയറുക എന്ന് വിചാരിക്കുന്നുള്ളൂ കാരണം ബേസിക് സാധനം അറിയാതെ അവരെ വേറെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് കാര്യം ഇല്ലല്ലോ

ആ അത് അങ്ങനെ തന്നെയാവും പിന്നെ എ എവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് ഇട്ടോളാം ബാക്കി നമുക്ക് ആ ഓക്കെ ഓക്കെ ഇത് വാട്ട്സാപ്പ് നമ്പർ ആണോ ആ ഓക്കെ ഞാൻ സേവ് ചെയ്തോളാം ആ ഫീസ് എണ്ണൂറ് രൂപ വെച്ചിട്ടാണ് മന്ത്ലി

ആ അത് ഇമ്പ്രൂവ് ആയി വന്നോളും നമ്മൾ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് എന്തായാലും അത് ആ ശരി എന്നാൽ ആ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് ഇട്ടോളാം ഇടയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിലേ മെസേജ് ഇട്ടോളാം ശരി ഓക്കെ ബൈ